ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഭാഷ ഭക്ഷണം വസ്ത്രം കാലാവസ്ഥ രാഷ്ട്രീയം സാക്ഷരത ഭൂപഠനം ഇങ്ങനെ പല ഇതിലും വ്യത്യാസമുണ്ടെങ്കിലും നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യമാണ് ഇന്ത്യ നാമെല്ലാം പലരാണെങ്കിലും ഒരു രാജ്യമെന്ന നിലയിൽ നമ്മളെല്ലാം ഒന്നാണ് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ഥ തരത്തിലുള്ള ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേരളത്തിൽ മലയാളവും തമിഴ്നാട്ടിൽ തമിഴും കന്നടയിൽ കന്നഡ അങ്ങനെ വ്യത്യസ്ഥ ഭാഷകൾ നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യമാണ് ഇന്ത്യ നമ്മുടെ ദേശീയ ഭാഷയായ ഹിന്ദി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഹിന്ദി അറിയണമെന്ന് നിർബന്ധമില്ല ഭാഷകൾ വ്യത്യസ്ഥമാണ് ഭക്ഷണം വ്യത്യസ്ഥമാണ് വസ്ത്രങ്ങൾ വ്യത്യസ്ഥമാണ് കാലാവസ്ഥ വ്യത്യസ്ഥം വ്യത്യസ്ഥമാണെങ്കിലും ഇന്ത്യയിൽ ഇന്ത്യയിലെ മനുഷ്യർ സുഭിക്ഷമായി ജീവിക്കുന്നു നാനാത്വത്തിൽ ഏകത്വമുള്ള ഇന്ത്യയിൽ വിവിധ സംസ്കാരങ്ങളും വിവിധ ആചാരങ്ങളും വിവിധ കാല വിവിധ ഇത് വിവിധ ആചാരങ്ങളും പ്രദേശങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുകയും അവിടെ നടത്തി വരികയും ചെയ്യുന്നു എന്നാലും ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ സംസ്കാരങ്ങളെ അവർ അവരുടേതായ രീതിയ്ക്ക് ബഹുമാനിക്കുകയും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്തു മുന്നോട്ട് പോകുന്നു